ഹലോ ആ ആരായിരുന്നു അതേലൊ ആ ചക്ക ഉണ്ടായിരുന്നല്ലൊ ഉണ്ടല്ലോ ഏത്തപ്പഴമുണ്ട് പിന്നെ നെല്ലിക്ക ഉണ്ട് ആ എൽ എല്ലാം ഫ്രഷ് ആയിരുന്നു എല്ലാം ഇന്നു വന്ന സാധനമാണ് ഇന്നലത്തെ ആ ആ അതേ അതേ ചക്ക ആണെങ്കിൽ ഇവിടെ വിൽക്കുന്നത് കിലോയ്ക്ക് മുപ്പത് രൂപ ചക്ക ഒരു ചക്ക ഒരു ചക്കയ്ക്കാണ് കിലോയ്ക്ക് മുപ്പത് രൂപ വെച്ച് വിൽക്കുന്നത് ആ ഏത്തപ്പഴം ഒരെണ്ണം ഒരു മൂന്ന് കിലോ നാല് കിലോ ഒക്കെയുള്ളത് ഉണ്ട് അതിലും ചെറുത് ഉണ്ട് അതിൽ കുറെ വലിപ്പമുള്ളത് ഉണ്ട് ഏത് വേണമെങ്കിലും ഉണ്ട് ഏത് വന്നാലും ഉണ്ട് ഏത് ഏത് വലിപ്പത്തിലുള്ളത് ഉണ്ട് ഇന്ന് കൊണ്ടുവച്ചേക്കുന്ന സാധനങ്ങൾ ആണെല്ലാം ആ എപ്പം വന്നാലും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളു അതുപോലെ ഏത്തയ്ക്ക ആണെങ്കിൽ അ ഹോം ഡെലിവെറി സ്ഥലം സൗകര്യമുണ്ട് നിങ്ങൾ എവിടെയാണെന്ന് സ്ഥലം പറഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ട് തരുന്നതായിരിക്കും ഞങ്ങൾ എത്തിച്ച് തരും ഏത്തപ്പഴത്തിന് അറുപത് രൂപ നല്ല നമ്മുടെ നാടൻ ഏത്തപ്പഴമാണ് നല്ല ഏത്തപ്പഴമാണ് നല്ല വിഷമൊന്നും ഇടാത്തതും നല്ല ഏത്തപ്പഴാണ് പഴുത്തതാണ് നന്നായിട്ട് പഴുത്തതും നല്ല കായും നല്ല പഴമാണ് ഇവിടുത്തെ കാ നാടൻ കായ ആണ് ഇഷ്ട്ടപ്പെടുന്നതാണ് നിങ്ങൾ എപ്പം വന്നാലും നിങ്ങൾക്ക് ഹോം ഡെലിവെറി ഉണ്ട് വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും നെല്ലിക്ക ഉണ്ട് നെല്ലിക്ക നാടൻ നെല്ലിക്ക ഉണ്ട് വരവു നെല്ലിക്ക ഇരിപ്പുണ്ട് നല്ല ഈ നെല്ലിക്ക നല്ല ചെറിയ അച്ചാറിടാൻ കൊള്ളാവുന്നതും തന്നെ നല്ല

അ എത്ര അ മൂത്തയൊരു ചക്ക അ നാല് കിലോ ഏത്തപ്പഴം മ്മ് നെല്ലിക്ക ഫ്രൂട്ട്സ് വേറെ എന്താണ് വേറെ എന്താണ് വേണ്ടത് മാങ്ങ പഴമുണ്ട് പിന്നേ വേറെ തണ്ണിമത്തനുണ്ട് നാടൻ ഇല്ല മാങ്ങ പഴം ഇവിടെ നിന്ന് വേറെ പുറത്ത് നിന്ന് കൊണ്ടുവന്നതാണ് മ് നല്ല മാങ്ങ പഴം നല്ല ആ അതേ അതേ അതേ നാടൻ മാങ്ങ പഴം വരാറായിട്ടില്ല നമുക്ക് ഒരു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വേണം നാടൻ മാങ്ങ പഴം ഉള്ളു ആ നല്ല തണ്ണിമത്തൻ നല്ല തണ്ണിമത്തനുണ്ട് അവക്കാടൊ ഇരിപ്പില്ല അവക്കാടൊ ഇരിപ്പില്ല ആ മ് അല്ലേൽ പിന്നെ ഓർഡറുകൾ കിട്ടും നമുക്ക് അടുത്ത ദിവസം തന്നെ ഇന്ന് നാളെ അവക്കാടൊ വരും നമുക്ക് നാളെ നമുക്ക് എത്തിച്ചരാൻ പറ്റും ആ നാളെ അവക്കാടൊ ആ അതെയതെ നാളെ ലോഡ് നമുക്ക് സാധനം തീർന്ന് പോയത് കൊണ്ടാണ് നാളെ ഇനി ലോഡ് വരികയുള്ളു സാധനം എല്ലാം എൻ്റെ എല്ലാ സാധനങ്ങളും ഫ്രഷായിട്ട് ചക്കയൊക്കെ ഇപ്പം ഇനി ഇവിടുന്ന് നമ്മൾ നാടൻ സാധനം ആയതുകൊണ്ട് എടുത്ത് വച്ചേക്കുന്നതാണ് അതുകൊണ്ട് ആ അതേയതെ അതേയതെ അതേയതെ ചക്കക്കുരു ഉണ്ട് ചക്കക്കുരു ഉണ്ട് ചക്കക്കുരു കിലോ ഇപ്പം നമ്മൾ അറുപത്തിയഞ്ച് രൂപായ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് നല്ല നല്ല ചക്കക്കുരു ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ ഈ കൂടത്തിൽ തന്നു വിടാം കൊടുത്ത് വീട്ടിൽ എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എവിടെ ആയിരുന്നു ഇടുക്കിയാണ് ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ദൂരവും ഉണ്ട് ഓക്കെ ഓക്കെ ഓക്കെ ആ തരും തരും തീർച്ചയായിട്ടും ഏ അ ആ അപ്പം അ മാതളനാരങ്ങ ഉണ്ട് പിന്നെ തണ്ണിമത്തനുണ്ട് പിന്നേ ഇതൊക്കെ ഇരുപ്പുണ്ട് നല്ല സാധനങ്ങൾ എല്ലാം ഇതിനകത്ത് ആ ഉണ്ട് ഉണ്ട് ചെറുപഴം എല്ലാം ഫ്രഷാണ് ചെറുപഴം വേണേൽ ഉണ്ട് മോശമാണേൽ തിരിച്ച് അയച്ചുകൊള്ളൂ മോശമല്ല നല്ല സാധനമാണ് എല്ലാം നല്ല സാധനമാണ് നിങ്ങൾക്കിഷ്ടപ്പെടും ആ അതെ അതേയതെ ഞങ്ങളത് കൃത്യമായിട്ട് എത്തിച്ചു തരും അ ആ ചക്ക ഒരു വലിയ ചക്ക നാല് കിലോ ഏത്തപ്പഴം പിന്നേ രണ്ട് കിലോ നെല്ലിക്ക രണ്ട് കിലോ പിന്നേ ഇത് വല്ലതും തണ്ണിമത്തൻ വല്ലതും വേണോ വേണ്ട

ഓക്കേ ഓക്കേ അപ്പം അങ്ങനെ ഇതെല്ലാം എത്തിച്ച് തരുമല്ലൊ ഇടുക്കിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അല്ലേ ഓക്കേ ഓക്കെ ഓക്കേ ഇല്ല ഇല്ല ഇല്ല ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ താങ്ക് യു